രണ്ട് ലക്ഷത്തി പതിമൂവ്വായിരം എട്ട് ലക്ഷത്തി ഇരുപത്തിമൂവ്വായിരത്തി നാന്നൂറ്റി പന്ത്രണ്ട് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല്